ഹലോ ആ ഇവിടെ ഉണ്ട് ഞാൻ ഒരു കർഷകൻ ആണ് എനിക്ക് ധാരാളം തേങ്ങകൾ വിൽക്കാൻ ഉണ്ട് ഇവിടെ കൂട്ടി വച്ചിരിക്ക ആണ് ഇവിടെ കിലോ നാൽപ്പത് രൂപയാണ് ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപയാണ് നിങ്ങൾക്ക് എന്ത് മാത്രമാണ് വേണ്ടത് എന്താ ആവശ്യം അത് കൺസെഷൻ കൺസെഷൻ ചെയ്യാൻ ആയി കൂടുതൽ എടുക്കുവാണേൽ കുറവ് വരുത്താം നാൽപ്പത് ഉർപ്യാന്ന് ഉള്ളത് കുറയ്ക്കാം ഒരു നൂറ് എണ്ണം ഒക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് തരാം കിലോ പെർ കിലോ ഓക്കെ

ആ ലെവൽ ഇന്നും കുറവാ ആ ആ ആ ഞാൻ ഞാൻ കർഷകൻ ആയ കൊണ്ട ഞാൻ ഞാൻ തേങ്ങ ഇട്ട് വിൽക്കുന്ന കർഷകൻ ആയ കൊണ്ട് ഇവിടത്തന്നെ കൊടുത്തു ഫാം ഉണ്ട് അതുകൊണ്ട് വേറെ ഒരു വഴിയാ നിങ്ങക്ക് കൂടുതൽ ആവശ്യം ഒന്നുന്ന് ഉള്ളത് തേങ്ങായുടെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഏറ്റവും കൂറഞ്ഞ റേറ്റ് ഒരു മൂപ്പത്തി രണ്ട് വരെ വേണേലും ആക്കാം ആ ആ അത് കഴിഞ്ഞിട്ട് ആ വിളിച്ചാൽ മതി ഇല്ല ഇല്ല മുപ്പ നിങ്ങൾ മാർക്കറ്റിൽ അന്വേഷിച്ചിട്ട് മതി ഇപ്പോൾ ഒരിടത്തും കിട്ടുകേല ഒരിടത്തും അങ്ങനെ കിട്ടത്തില്ല ഇത് ഇവിടെ നമ്മൾ കർഷകൻ നേരിട്ട് കൊടുക്കുന്നത് കൊണ്ടാ അങ്ങനെ ആ

ഉവ്വ ഉവ്വ ആ അത് കഴിഞ്ഞിട്ട് വന്നാൽമതി ആ ഓക്കെ എന്നാൽ ശരി